ഇന്ന് ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പല രീതിയിലുള്ള സ്ഥലങ്ങളെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് കുന്ന് മലകൾ അങ്ങനത്തെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഇടിച്ച് താഴ്ത്തി കൊണ്ടിരിക്കുകയാണ് അവിടെ വീടും കാര്യങ്ങളൊക്കെ പണിയാൻ വേണ്ടിയിട്ട് കുന്നും മലകൾ മരങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടിച്ചു നികത്തി അവിടെ വീടും കാര്യങ്ങളൊക്കെ വെക്കുക ഫ്ലാറ്റ് പണിയുക റിസോർട്ട് പണിയുക ഇങ്ങനെ ആയിരിക്കുകയാണ് മനുഷ്യർ അപ്പം നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് പല ഭാഗത്തും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മണ്ണ് മാന്തി ആ മണ്ണ് വേറെ എവിടെയെങ്കിലും കൊണ്ട് തള്ളുക അതുപോലെ തന്നെ നദി ഇടിച്ചു നിരത്തി നദിയെ തന്നെ ഇല്ലാതെ ആക്കുക മണൽ വാരുക കുറേ അധികം മണൽ മാഫിയ സംഘങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് മണൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇഷ്ടംപോലെ ലോറികൾ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് പിന്നെ ഇപ്പോൾ ഡൽഹിയിൽ ഈ ഇടെ അടുത്തിടെ ഉണ്ടായ ഡൽഹിയിൽ അവിടെത്തെ വായു ഫുള്ള് മലിനീകരണമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കാരണമെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വാഹനങ്ങളിൽ നിന്നു വന്ന പുകയാണ് എല്ലാറ്റിനും പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇന്ത്യയിൽ പല ഭാഗത്തും ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മനുഷ്യർ തന്നെയാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വേനൽ മഴ തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് ഈ കാല സമയത്തൊക്കെ നല്ല രീതിയിലുള്ള മഴയൊക്കെ ലഭിക്കേണ്ട ഒരു സമയം ആയിരുന്നു പക്ഷെ എന്നാൽ മഴയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല ഇപ്പം നല്ല രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥ ആയിട്ടാണ് മാറിയിരിക്കുന്നത് അങ്ങനെ ഒക്കെയാണ് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും മാറിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാം